ഇപ്പോൾ ഞാൻ അതായത് ഇപ്പോൾ പല രീതിയിലുള്ള ഡ്രോയിങ്ങ് ക്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഒരു ഒരു ഡ്രോയിങ്ങ് ക്ലാസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ക്ലാസിൽ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് തന്നെ മുഴുകി ഇരുന്നിട്ട് ക്ലാസും കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് പഠിച്ചതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ നമ്മൾക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുള്ളൂ അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഡ്രോയിങ്ങ് ക്ലാസിനൊക്കെ പോയിക്കഴിഞ്ഞാൽ അവർ ഓരോ ഒരു ടോപ്പിക്ക് തന്നിട്ട് നമ്മള് അതിനെക്കുറിച്ചിട്ട് വരയ്ക്കാൻ ആണെങ്കിൽ അത് വരയ്ക്കുക അതിന് കളർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഒരു ഡ്രോയിങ്ങിനിപ്പോൾ ഒരു മലയും അതായത് ഉദിച്ചുവരുന്ന സൂര്യനും അങ്ങനത്തെ ഒക്കെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ഭാവനയിൽ ചിത്രീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വരച്ചിട്ട് അതിന് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ ഇപ്പോൾ ഓരോ മലയ്ക്ക് ഇപ്പോൾ എന്ത് കളർ കൊടുക്കണം സൂര്യന് എന്ത് കളർ കൊടുക്കണം എന്നൊക്കെ നമ്മൾക്ക് ഏകദേശം ഒരു ഊഹം ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കുക അങ്ങനെ നമ്മളെ ഇടക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും